പുതിയ പാചക വിധികളെക്കുറിച്ച് നമ്മൾ അറിയാനായിട്ട് മെയിൻ ആയിട്ട് യൂടുബിലുള്ള പാചക പരിപാടികളാണ് നമ്മൾ കാണാറുള്ളത് എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ മറ്റുളള ഇടത്ത് ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ പണ്ട് വരാറുണ്ട് അപ്പോള് നമ്മൾ അത് വരുമ്പോള് നമുക്കത് കൃത്യമായി എഴുതിയെടുക്കാറാണ് പതിവ് അത് നമുക്ക് ആ ഷോ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാന് പറ്റില്ല യൂടുബിലാണെങ്കില് നമുക്കത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഓരോ രംഗവും കണ്ട് കൃത്യമായിട്ട് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്ന മസാലകളായിക്കോട്ടെ പൊടികളായിക്കോട്ടേ ഉപ്പ് എന്ത് ആണ് അതായത് ഇപ്പോൾ വെജ് നോണ് വെജ് എതൊക്കെയാണ് അതിൽ ചേര്ക്കേണ്ട വെറൈറ്റികള് നോക്കി കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് യുടൂബ് ആണ് ഏറ്റവും ഉപകാരപ്രദമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പരിപാടികളാണ് നമ്മളെപ്പോഴും കാണാറുള്ളത് കാരണം നമ്മളിപ്പം ഏത് സാധനം വേണം എന്നുണ്ടെങ്കിലും നമ്മൾ അപ്പോൾ യൂടുബില് അടിച്ചു കൊടുക്കും അപ്പോൾ തന്നെ അത് വരും അത് നമുക്ക് ഏതൊക്കെ വിധത്തിൽ ഇപ്പോൾ ഒരാൾ ചെയ്ത രീതിയായിരിക്കില്ല മറ്റൊരാൾ ചെയ്തത് അപ്പോൾ പലപ്പോഴും ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ എന്തായാലും യൂടുബില് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് പലപ്പോഴും ഞാന് കണ്ടിട്ടിണ്ട് പിന്നെ അതുപോലെത്തന്നെ ചിലരുടെ ടെസ്റ്റ് വ്യത്യാസമായിരിക്കാം ചിലരുടെ ഫ്ലേവര് വ്യത്യാസമായിരിക്കാം ചിലർ ചെയ്യുന്ന കുക്കിംഗ് രീതി വ്യത്യാസമായിരിക്കാം അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കാം അതിന്റെ കളര് വ്യത്യാസമായിരിക്കാം അതിനൊക്കെ നമുക്കറിയണമെങ്കില് യൂടുബ് മാത്രമാണ് അപ്പോൾ നമ്മൾ എല്ലാവരുടെയും യൂടുബില് നമ്മൾ ഓരോ വ്യക്തികൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപീകള് കണ്ടിട്ട് അതിലേറ്റവും ബെറ്റരാണെന്നു തോന്നിയത് എടുത്ത് നമ്മൾ ട്രൈ ചെയ്യും എന്നിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നെസ്റ്റ് വണ് നമ്മൾ ചൂസ് ചെയ്യും അതൊക്കെ ഓരോരുത്തരുടെയും ഇത് പോലെ നമുക്കറിയാം യൂടുബ് മാത്രമല്ല ഇപ്പോൾ ഫേസ്ബുക്ക് ഇന്സ്റ്റയിലൊക്കെ നമുക്ക് ഓരോരുത്തർ ഓരോ റെസിപീ അതുപോലെത്തന്നെ ചില ചില ഹോട്ടലുകളിലും അവർ കുക്ക് ചെയ്യുന്ന രീതികൾ അവർ ചില യൂടുബ്സ് അത് വ്ളോഗ് ആയിട്ട് ഇടാറുണ്ട് അപ്പം അവർ ആ വ്യക്തിയുടെ ആ യൂടുബേസ് അവിടെ പോയി അവരുടെ ഹോട്ടലില് അവരുടെ മെസ്സില് കയറി അത് ലൈവായി എടുത്തിട്ട് നമ്മളിടുമ്പോൾ നമുക്കതിന്റെ വ്യത്യാസം അറിയാം അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്ക് ഹോട്ടലിന്റെ ടച്ച് അപ്പ് വന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ നമ്മൾ അങ്ങനെയും ഇടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കും പക്ഷെ ഏറ്റവും ബെറ്റർ എന്താണെന്നുവച്ചാൽ ഇങ്ങനെത്തെ ഒരു സോഷ്യല് മീഡിയ അതായത് ഇങ്ങനെത്തെ ഒരു യൂടുബ് ഫേസ്ബുക്ക് ഇന്സ്റ്റയിലൊക്കെ വന്നത് ആ റെസിപീ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്ത് അതിന്റെ ഓരോ ഭാഗങ്ങൾ കാണാം അത് ചെയ്യുന്ന രീതികളില് വ്യത്യാസം വരുത്തി ഇപ്പോൾ ഇന്ന ഒരു വ്യക്തി ചെയ്ത ടൈപ്പ് ചെയ്യുകയാണെങ്കില് നാളെ വേറെ വ്യക്തി ചെയ്തത് ചെയ്യാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതല് കൂടുതല് ടേസ്റ്റിഫുള്ളായിട്ടുള്ള ഫുഡ് കിട്ടാം അത് നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഹോട്ടല് എല്ലാവരും പറയും ഹോട്ടലില് പോയിട്ടാണ് നമുക്ക് നല്ല ഫുഡ് കിട്ടുക എന്ന് പക്ഷെ ആ ഹോട്ടലില് കിട്ടുന്ന അതെ ടേസ്റ്റിലും അന്നാ ഹോട്ടലില് ചേര്ക്കുന്ന അതായത് ഈ അജിനോമോട്ടോ അങ്ങനെത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടില് ചെയ്യാവുന്ന വീട്ടിലുള്ള ചേരുവകൾ എടുത്ത് വീട്ടില് കിട്ടാവുന്ന കോമൺ ആയ എല്ലാവരുടെയും വീട്ടില് കിട്ടുന്ന സാധനങ്ങളെടുത്ത് നമുക്ക് കുക്ക് ചെയ്ത് നമുക്കാ ടേസ്റ്റ് കിട്ടുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും ബെറ്റർ യൂടുബ് തന്നെയാണ് ഈ പരിപാടികളാണ് നമ്മൾ സാധാരണ ഞങ്ങൾ കാണുന്നത് അത് ഇതുകൊണ്ടാണ് നമ്മളീ പരിപാടി കാണുന്നത്